തീർച്ചയായും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിലും വിദ്യഭ്യാസ സംബന്ധമായ ഇത് ടി വി യിലും വേണം കാരണം ഓൺ ഓൺലൈനെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ സ്മാർട്ട് ഫോണുകളായിരിക്കും കൂടുതലും കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഒത്തിരി നേരം മക്കളിൽ നമുക്ക് അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല ഫോൺ കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ പണിയിലേക്കൊക്കെ കടക്കും അപ്പോൾ ഈ മക്കൾക്ക് മക്കളത് പിന്നെ എങ്ങനെ യൂസെയ്യുമെന്ന് അറിയില്ല അപ്പോൾ ഓൺലൈനിൽ കൂടുതൽ നമ്മള് ടി വി യിലും ഓൺലൈനിലും ഒക്കെ കണക്ട് ചെയ്ത് വിദ്യഭ്യാസപരമായ കാര്യങ്ങൾ കുട്ടികളിലെത്തുവാണെങ്കില് നല്ല രീതിയായിരിക്കും നമ്മള് കൊറോണ കാലഘട്ടത്തിലൊക്കെ അങ്ങനത്തെ ഒരു രീതിയാണല്ലോ പരീക്ഷിച്ചത് അത്യാവശ്യം നല്ലരീതിയിൽ ഇതാക്കാൻ പറ്റി അപ്പോൾ നമുക്ക് അവര് പെട്ടെന്ന് ഈ അതായത് ഈ കാർട്ടൂൺ പോലുള്ള കാര്യങ്ങള് വിശ്വലൈസ് ചെയ്യുമ്പോൾ അവര് പെട്ടെന്ന് പഠിക്കാൻ ഇതുണ്ട് ചാൻസുണ്ട് അപ്പോൾ നല്ലൊരു ഇതാണ് മാധ്യമമാണ് ഓൺലൈനിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നല്ലതാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് കൂടുതല് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അവരിലേക്ക് എത്താനും എളുപ്പമായിരിക്കും